മലയാള ഭാഷയുടെ ഉപയോഗത്തിൽ കാലക്രമേണ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മാറ്റങ്ങൾ അതിൻ്റെ അടിസ്ഥാനം എന്തെന്നാൽ ഭാരതത്തിൽ മറ്റ് സംസ്ഥാനങ്ങളുടെ ഭാഷകൾ മലയാള ഭാഷയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്

സംസാര രീതിയിൽ മാറ്റങ്ങൾ പുതിയ പുതിയ വാക്കുകൾ ഉപയോഗിച്ച് കൊണ്ട് സമ്പർകം

ഗ്രാമപ്രദേശങ്ങളിൽ മാത്രമാണ് മല നല്ല മലയാളം സംസാരിക്കാൻ കാണുന്നത് സംസാരിച്ച് കാണുന്നത് ഇത്

മറ്റു ഭാഷകൾ കലർത്തിയുള്ള സംസാരം വന്നിട്ടുണ്ട് കോർപ്പറേറ്റ് ലോകം കോർപ്പറേറ്റ് കമ്പനികൾ വന്നതോടെ